ഇപ്പോൾ ഞാൻ പറയാണേൽ കർഷക ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെയൊക്കെ ആദ്യത്തെ കർഷക ആത്മഹത്യാന്നു പറയുമ്പോൾ നമ്മുടെ നാട്ടിലാണ് നടന്നത് പുൽപ്പള്ളിലാണ് സംഭവം നടന്നത് അപ്പോൾ അവിടുന്ന് സംഭവമെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ലഭിക്കേണ്ട സബ്സിഡി നിരക്കിലൊക്കെ ലഭിക്കേണ്ട എന്താ പറയാ വിത്തുകളും മറ്റു കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടാതെ വരുമ്പോഴും പിന്നെ എന്താ പറയാ അവർക്ക് ലോണ് കാര്യങ്ങൾ കൃഷി മെച്ചപ്പെടുത്താനുള്ള ക്യാഷിൻ്റെ കുറവൊക്കെ കാരണമാണ് ഇവർ സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പൊതുവെ നമ്മളിപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്ന കൃഷിക്കാർക്കൊന്നും വലിയ മുൻഗണന ആരും നൽകുന്നില്ല കാരണം എല്ലാരും ഇത് കടകളിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്നത് കൊണ്ട് ഇവരെവിടുന്നു കിട്ടുന്നു എന്ന് അത് ചിന്തിക്കുന്നില്ല അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ ഓരോ കടകളിലൊക്കെ പോയി മേടിക്കുനന്ത് കൊണ്ട് അവർക്കിതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അറിയാത്തോണ്ട് അവർ ഇതിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല എന്നാൽ കർഷകരിത് കൃഷി ചെയ്യാനോ അവർക്കാവശ്യമുള്ള എന്താ പറയാ സ്ഥലം അതിനുവേണ്ട വിത്ത് വിളവ് വെള അതിനുവേണ്ട തൊഴിലാളികൾ പിന്നെ അങ്ങനുള്ള കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോഴാണ് ഇവരിങ്ങനെ ആത്മഹത്യക്കൊക്കെ മുതിരുന്നത് അപ്പോൾ പിന്നെ സർക്കാർ സാധാരണ ഇപ്പോൾ എന്താ മുൻകരുതലുകളാണ് എടുക്കേണ്ടതെന്നു വെച്ചുകഴിഞ്ഞാൽ സർക്കാർ ഇവർക്ക് വേണ്ട ക്യാഷ് കാര്യങ്ങളൊക്കെ ആയാലും ലോണ് രീതിയിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കയാണ് സാധാരണ ചെയ്യേണ്ടത് പിന്നെ അവർക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വിളയാണ് എന്താണ് അവിടെ വേണ്ടത് അതിനനുസരിച്ച് സർക്കാർ ചെയ്തുകൊടുത്താൽ പരമാവധി എന്താ പറയാ കർഷക ആത്മഹത്യയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും